എൻ്റെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ലവണ്ണം ചിത്രം വരയ്ക്കുന്ന ഒരാളാണ് അതുകൊണ്ടു തന്നെ എനിക്ക് വരക്കാൻ തോന്നാത്ത ദിവസങ്ങളുണ്ടാകാറുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് വരക്കാൻ തോന്നാത്ത ദിവസങ്ങളൊന്നും കൂടുതലുണ്ടാകാറില്ല പിന്നേയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരാണല്ലോ പല ഫങ്ങ്ഷനും കാര്യങ്ങൾക്കും പോകും പിന്നേയെന്ന് വെച്ചിട്ടുണ്ടെകിൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ടാകും പിന്നേയെന്ന് വെച്ചിട്ടുണ്ടെകിൽ നമുക്ക് ചിലപ്പോൾ സുഖമില്ലാത്ത ദിവസമുണ്ടാകും പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അതായത് പാചകം എല്ലാം ചെയ്ത് ചിലപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ളൊരു ടൈം കിട്ടിയെന്നൊന്നും വരില്ല അപ്പം അങ്ങനെയുള്ള ടൈമിൽ മാത്രമേ നമുക്ക് വരക്കാനുള്ളൊരവസരം നഷ്ട്മാകുന്നൊരു ടൈമുള്ളു അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പേപ്പറും പെൻസിലും മുന്നിൽ കണ്ട് നമുക്കപ്പം ചിത്രം വരയ്ക്കാൻ തോന്നും അതാണ് എൻറ്റൊരു മൈൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചത്രം വരച്ചത് അപ്പോൾ ഞാൻ ചിത്രം വരച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും കാണിച്ച് കൊടുക്കുക കാരണം എൻറെ വീട്ടിലുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കും അപ്പോൾ അവരുടെ ഒരു മൈൻഡ് അതായത് അപ്പോൾ അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉളവാകുന്നതാണ് അതുകൊണ്ടു തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അപ്പം അതിനു വേണ്ടി ഞാനൊരുപാട് ചിത്രങ്ങളൊക്കെ വരക്കാറും ഉണ്ട്